ലക്ഷങ്ങളും കോടികളൊന്നും കൊടുത്ത് നമുക്കിപ്പം പൂന്തോട്ടം പരിപാലനം നടക്കുവൊന്നും ഇല്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ ചെടികൾ അവിടെ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ പൂച്ചട്ടി ഉണ്ടെങ്കിൽ പൂച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നിലത്തോട്ട് കുഴിച്ച് വെച്ചിട്ടോ ഇരിക്കുമ്പോൾ അതിൻ്റെ കാമ്പും കോലുമൊക്കെ വെട്ടേണ്ട സമയത്ത് അതൊക്കെ വെട്ടിയൊക്കെ കൊടുത്ത് അതിനെ ഇച്ചിരി അത് ചാണകപ്പൊടിയെല്ലാം കൂടെ കൂട്ടി അതിനിച്ചിരി ഇടക്കിച്ചിരി വളം ഇട്ട് കൊടുത്ത് ഇച്ചിരി മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ച് കൊടുക്കുമെങ്കിൽ പൂന്തോട്ടം അവിടെ നിന്നോളും ഇപ്പം നമ്മക്കതിനായിട്ട് പ്രത്യേകിച്ച് അതിനായിട്ട് ഒരു തോട്ടക്കാരനെയൊക്കെ നിർത്തി അവനിപ്പം പതിനായിരം രൂപയൊക്കെ കൊടുത്ത് നിർത്തി പണിയിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യോള്ളന്ന കാര്യമല്ല നമുക്ക് നമുക്ക് ഒരു നേരംപോക്കും ആകും നമുക്ക് സന്തോഷം ആകും നമ്മൾ ആ രീതിയിൽ നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതിപ്പം വലിയ രീതിയിലൊന്നും നോക്കി ഇപ്പം നമ്മൾ പുറത്തോട്ട് പൂവൊന്നും എടുത്തിട്ട് പുറത്തോട്ട് പൂ കൊണ്ടേ വിറ്റിട്ട് ജീവിക്കാനുള്ള ഒരിതൊന്നും ഇല്ല നമ്മുടെ സന്തോഷത്തിനായിട്ട് നമ്മളൊരു ചെറിയൊരു പൂ അത് നമ്മൾ രണ്ട് മുറ്റത്തിൻ്റെയും രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ച് സന്തോഷം രാവിലെയും കാണാം വൈകുന്നേരവും കാണാം നോക്കി നടക്കാം അത്രയേ ഉള്ളു അല്ലാതെ കൂടുതലായിട്ട് ഇപ്പം വലിയ പൂന്തോട്ടമായിട്ടുള്ളതൊന്നും നമുക്ക് നോക്കി നടത്തി പഴയകാലത്ത് പണിക്കൂലി ഒന്നും കൊടുത്ത് വലിയ പഠിക്കാനുള്ള നടക്കുന്ന കാര്യമല്ല